കല്യാണം പോലുള്ള വലിയ പരിപാടിക്ക് വെള്ളം എങ്ങനെയാ ക്രമീകരിക്കുന്നത് ചോദിച്ചാൽ ഇപ്പോഴത്തെ രീതി അനുസരിച്ച് ബോട്ടിലാണ് എല്ലാവർക്കും എന്നുവെച്ചാൽ സൗകര്യപ്രദമായ രീതി അവനവന് ഇരിക്കുന്ന ടേബിളിൽ വെള്ളം വേസ്റ്റ് ആകാതെ ദേഹത്ത് വീഴാതെയൊക്കെത്തന്നെ അവനവൻ്റെ ടേബിളിൽ തന്നെ ക്രമീകരിക്കുന്നതാണിത് മറ്റത് എന്ന് വെച്ചാൽ എല്ലാവരും പലരാണത് ഉപയോഗിക്കുന്നത് പല വെള്ളത്തിൽ കയ്യിടും അങ്ങനൊക്കെ വരും പല ഇതും കുടിച്ചിട്ടും ഉണ്ട് ക്ലാസിടും അല്ലെങ്കിൽ പാത്രം ഇടും അപ്പം അങ്ങ ഇപ്പോൾ കുപ്പിയിലാവുമ്പം കുഴപ്പം ഇല്ല അത് എല്ലാവർക്കും നല്ലതാണ് അത്യാവശ്യം കുടി എല്ലാവർക്കും എല്ലാവരുടെയും ടേബിളിൽ ഓരോ കുപ്പി കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ കുടിക്കുകയും ചെയ്യും അത് കല്യാണം കഴിഞ്ഞ് പുറത്ത് പോവുമ്പം ദൂരെ പോവുന്നവർക്കൊക്കെയാണെങ്കിൽ കുപ്പി കഴിഞ്ഞാൽ സമയത്ത് കുടിക്കുന്ന സമയത്ത് വെള്ളം കുടിക്കുക ഒക്കെ ചെയ്യും അപ്പം എൻ്റെ എക്സ്പീരിയൻസ് അതാണ് പറയുന്നത് ബോട്ടിൽ വെള്ളം തന്നെയാണ് നല്ലത് അല്ല വലിയ ടാങ്കിലല്ല പോലെ വെച്ച് കഴിഞ്ഞാൽ അത് പൈപ്പിൽ വച്ചു കഴിഞ്ഞാൽ വെള്ളം വേസ്റ്റ് ആയി പോ അറിയില്ല കുഞ്ഞുങ്ങളൊക്കെ ചിലപ്പോൾ തുറന്നിടും അറിയാൻ പറ്റത്തില്ല ഇതാവുമ്പം ബോട്ടിൽ ആണ് നല്ലത്